കുറേ നാളായി വിചാരിക്കുന്നു ഒരു മെറ്റ് ചുരിദാർ മെറ്റീരിയല് വാങ്ങണം എന്ന് അങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ ഭയങ്കര റേയ്റ്റും കാര്യങ്ങളക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫോണിൽ വീട്ടിലിരുന്ന് ഫോണിലൂടെ മീഷോ ആപ്പിലൂടെയോ ഫ്ലിപ്പ്കാർട്ടിലൂടെയും ഞാന് ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങുകയാണ് ചെയ്തത് മെറ്റീരിയൽ ആണ് വാങ്ങിയത് അപ്പം അത് ഫ്രണ്ട്സ് പറഞ്ഞു നല്ല മെറ്റീരിയലാണ് നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി ആണ് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചതാണ് എന്നോട് അവള് പറഞ്ഞത് കൊണ്ട് ഞാനത് മേടിച്ചതാണ് അങ്ങനെ ഓർഡറ് ചെയ്ത് ഏഴ് ദിവസായപ്പം സാധനം എത്തി ആ ഫ്ലിപ്പ്കാർട്ടിലെ ഒരാള് വന്ന് കൊണ്ടുവന്ന് തന്നു അത് തുറന്ന് നോക്കുമ്പോൾ തുറന്ന് നോക്കിയപ്പം നല്ല തുണിയൊക്കെ ആയിരുന്നു പിന്നെ നല്ല തുണി നല്ല വർക്കുള്ളതൊക്കെ ആയിരുന്നു ആ അത് അത് പിന്നെ തയ്ക്കാൻ കൊടുത്തു അങ്ങനെ ചുരിദാറ് തയ്ച്ചു തയ്ച്ച് കയ്യില് കിട്ടിയപ്പോഴാണ് നല്ല രസമുള്ള ഒരു ചുരിദാറായിരുന്നു അവര് പറഞ്ഞ പോലെ തന്നെ നല്ല കളറും നല്ല ഡിസൈനിങ്ങും ഒക്കെയായിരുന്നു നല്ലൊരു പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു അത്